ഞാൻ ജോലിക്ക് പോവുമ്പം അവിടെ റോള് സൈഡിൽ പഴയൊരു വീട്ടിന്റെ ഒരു മൂലക്ക് രണ്ട് കുഞ്ഞി പട്ടിക്കുട്ടികൾ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം നല്ല മഴയായിരുന്നു അപ്പോൾ തണു തണുപ്പടിച്ചിട്ട് അവർ കരയുന്നുണ്ടായി അപ്പോൾ എനിക്കെന്തോ സഹതാപം തോന്നിട്ട് ഞാൻ അവിടെ അടുത്തുള്ളൊരു ചായക്കടേൽ പോയിട്ട് ഒരു ഗ്ലാസ്സ് പാൽച്ചായായും പിന്നെ ബിസ്ക്കറ്റും വാങ്ങിട്ട് അവിടൊരു പൊട്ടിയ പാത്രത്തിൽ ഇട്ടുകൊടുത്തു അവരത് കഴിക്കയും ചെയ്തു കഴിച്ചിട്ട് പിന്നെ എന്റെ പുറകെ വരാൻ നിന്നു അപ്പോൾ ഞാനാ അവിടെ ഒരു എന്താ പ്ലാസ്റ്റിക് കിടപ്പുണ്ടായിരുന്നു അത് വെച്ച് അവർ ആ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി മറച്ച് കൊടുത്തു അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ മിണ്ടാതെ കിടക്കുകയും ചെയ്തു അപ്പോൾ എനിക്കത് ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത് ഞാൻ അവരുടെ വിശപ്പ് മാറ്റി എന്നിട്ട് പിന്നെ ഞാനെന്റെ ജോലിക്ക് പോയി പോയി തിരിച്ച് വരുന്ന വഴിക്ക് ഞാനവരവിടെ ഉണ്ടോന്നോക്കി അപ്പോൾ രണ്ടും അവിടെ ചുരുണ്ടും കൂടി കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ രണ്ട് പട്ടിക്കുട്ടികളേം എടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടന്നു എന്നിട്ട് അവരെ ഞാൻ എന്റെ വീട്ടിൽ വളർത്തി ഇപ്പോൾ ആ പട്ടിക്കുട്ടികൾ എന്റെ വീട്ടിലുണ്ട് ഇതെനിക്കൊരു നല്ല കാര്യമായിട്ടാണ് ഒരു നേട്ടമായിട്ടന്നെയാണ് തോന്നുന്നത്